ഹലോ ഇത് ഫാമിലി ഹോസ്പിറ്റലാണോ ആ ആ ഞാന് ശിവാനിയാണ് അമേയ ഡോക്ടറല്ലേ ആ ഡോക് ഡോക്ടറേ എനിക്ക് രണ്ടൂ മൂന്നു ദിവസമായിട്ട് ഭയങ്കര പനിയും തലവേദനയും ആ മേലിനൊക്കെ മൊത്തം ഭയങ്കര വേദനയായിരുന്നു ആ ഞാന് പെയിൻ കില്ലറ് കഴിച്ചായിരുന്നു ഒരു രണ്ട് മൂന്നു ദിവസായി

ആ ഓക്കെ ഡോക്ടർ ആ ഓക്കെ ഛർദിയില്ല തലവേന ഉണ്ടായിരുന്നു അല്ല നല്ല തലവേദന ഉണ്ടായിരുന്നു ആ ആ ജലദോഷം എനിക്ക് ഇങ്ങനെ ജലദോഷം വന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര കഫക്കെട്ട് പോലെ വരും പിന്നെ എനിക്ക് ശ്വാസം കിട്ടില്ല അങ്ങനത്തെ ഒരു ഇതൊണ്ട് ആ നടുവിനൊക്കെ നല്ല വേദനയുണ്ട് ഡോക്ടർ

ഈ ഫുഡിൻ്റെ ഒന്നും സ്മെല്ലൊന്നും പിടിക്കണില്ല ആ ഓക്കെ ഡോക്ടർ മ് ആ ഓക്കെ ഡോക്ടർ ആ മേല് വേദന ഫസ്റ്റ് ഡേ ഞാനൊന്ന് ഛർദിച്ചു പിന്നെ ഛർദി ഇല്ലായിരുന്നു മേല് വേദന ഉണ്ട് നല്ല ക്ഷീണമാ നമുക്ക് എഴുനേറ്റ് നിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മടുപ്പിക്കുന്ന പോലത്തെ ക്ഷീണം ആ ഓക്കെ ഡോക്ടർ ആ ഓക്കെ ആ ഓക്കെ ഡോക്ടർ ആ ഓക്കെ എൻ

ആ ഓക്കെ ഡോക്ടർ ആ ഓക്കെ ഡോക്ടർ ആ ഓക്കെ ഡോ ഡോക്ടർ എനിക്ക് പൊതുവേ ഈ കൗണ്ട് കൊറച്ച് കൂടുതലാണ് ബ്ലഡ്ഡില് അപ്പം അതിൻ്റെ വല്ലതും ആണോ ഓക്കെ ആ ഓക്കെ ഡോക്ടർ ആ ഓക്കെ ഡോക്ടർ

ആ ഓക്കെ ഡോക്ടർ പിന്നെ ഈ അല ഈ പൊടിയൊക്കെ ഭയങ്കര അലർജിയാണ് ആ ഇവടെ പുല്ലൊക്കെ വെട്ടുന്നുണ്ടാരുന്നു അപ്പം അതിന്റെൻ്റെ മിഷ്യൻ്റെ ഒക്കെ പൊടി ജലദോഷം ആയിരുന്നു തുടക്കം അതിൽ നിന്ന് പിന്നെ വന്ന് വന്നാണ് പനി കിട്ടിയത് പനിയായത്

ആ ഓക്കെ ഡോക്ടർ ആ ഓക്കെ ഡോക്ടർ ആ ഓക്കെ ഡോക്ടർ ഓക്കെ ശരി